പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടമാണ് പാട്ട്കള് കൂടുതലും നല്ല റൊമാൻറ്റിക് സോങ്സോക്കെ കേൾക്കാനായിട്ട് നല്ല മെലഡി സോങ്ങുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കാനായിട്ട് നല്ല രസമാണ് നമ്മള് അതുപോലെ തന്നെ ഇപ്പം അടിച്ച് പൊളിപ്പാട്ടാണെങ്കിലും ഒക്കെ എല്ലാം ഇഷ്ടമാണ് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക എന്ന് പറയുമ്പം കെ എസ് ചിത്ര സുജാത അങ്ങനെ അവരെയൊക്കെ ഇഷ്ടമാണ് പിന്നെ ഹരിശങ്കർ വിനീത് ശ്രീനിവാസൻ യേശുദാസ് അങ്ങനെ എല്ലാവരേയും ഇഷ്ടമാണ് അങ്ങനെ ഇന്ന ആള് എന്നില്ല പാട്ടുകളെല്ലാം തന്നെ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ പാടുന്ന ആൾക്കാരും എല്ലാവരെയും ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഇങ്ങനെ നാടൻ പാട്ടുകൾ നമ്മുടെ ദേശത്തങ്ങനെ നാടൻ പാട്ടുകളൊന്നും ഇങ്ങനെ ഇല്ല നടൻ പാട്ട് പാടുന്നവരുണ്ട് നമ്മുടെ ഭാഗത്ത് അങ്ങനെ അതൊന്നുമില്ല ഓരോ പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ കേൾക്കാം അങ്ങനെയൊക്കെ എന്നാലും ഇഷ്ടമാണ് നാൽ നാടൻ പാട്ടും ഇഷ്ടമാണ് എല്ലാ പാട്ടുകളെല്ലാം ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ വേർതിരിവൊന്നുമില്ല എല്ലാം പാട്ടുകളും ഇഷ്ടമാണ് എല്ലാം കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ്